ആദ്യം തന്നെ നമ്മൾ എന്താണ് മഴക്കാലത്തൊക്കെ നല്ല വെള്ളം കിട്ടുന്ന ടൈമിലൊക്കെ നമ്മൾ വെള്ളം കുറച്ച് ഉപയോഗിക്കുക പാകത്തിന് ഉപയോഗിക്കുക അനാവശ്യമായി ചിലവാക്കാണ്ടിരുന്നാലെ മതി നമ്മളപ്പോൾ വെള്ളം നമുക്ക് ഉണ്ടാകും അതിൽ കിണറായാലും പൈപ്പ് വെള്ളമായാലും കുഴൽ കിണറായാലും എന്തായാലും നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുക ചിലവരൊക്കെ അനാവശ്യമായി വെള്ളം കളയണവരുണ്ടാകും അപ്പം നമ്മൾ പിന്നെ മഴ വെള്ള മഴ വെള്ള സംഭരണികൾ അങ്ങനെയുള്ളതൊക്കെയുണ്ടെങ്കിലും നല്ലതാണ് അപ്പം നമ്മൾ വേനൽക്കാലമായാലും നമ്മുടെ ആ ഉള്ള വെള്ളം വച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക ചെടികൾക്കായാലും ഒഴിച്ച് കൊടുക്കുക എന്തിനായി വെള്ളം എന്താണ് ചെടി മഴവെള്ള സംഭരണി ഉണ്ടെങ്കിൽ നമ്മൾ അതിലെ വെള്ളം ഉപയോഗിച്ച് ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കണത് നല്ലതാണ് പിന്നെ ആ ടൈമിൽ അവര്ക്ക് എന്താണ് തണുപ്പ് നിക്കണ മാതിരി ചകിരി അത് ഇതെല്ലാം വെച്ചിട്ട് വെള്ളമൊഴിക്കണേ കുറച്ചും കൂടി നന്നായി പിടിക്കുമതിൽ നിറയെ അന്നേരം വെള്ളം പോകാണ്ടിരിക്കും നിറയെ മണ്ണിട്ട് കൊടുക്കുക തണുപ്പ് നിക്കണ മാതിരി ഉള്ള ഇതെല്ലാമതിൻ്റെ ഈ പച്ചക്കറി വേസ്റ്റ് അതൊക്കെ ചെടികളുടെ താഴെ എല്ലാം കൊണ്ട് ഇടുക അപ്പോഴൊക്കെ ഒരു വിധം തണുപ്പ് നന്നായി നിൽക്കും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും വെള്ളം നമ്മൾ എന്താണ് ഒരുപാട് ഉപയോഗിച്ച് തീർക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മൾ അനാവശ്യമായി ചിലവാക്കാനേ പാടില്ല വെള്ളം അനാവശ്യമായി ചിലവാക്കിയാൽ തന്നെ നമുക്ക് വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ തന്നിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ ചെടികൾക്ക് തണുപ്പ് കിട്ടാനുള്ള പുതിയ പുതിയ നമ്മൾ സംരംഭങ്ങളൊക്കെ തുടരാൻ തുടങ്ങാമെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ ചെടികൾക്ക് വെള്ളം നിക്കണമാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുക അങ്ങനെ എന്തെങ്ങിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക കൊടും വേനലായാലും അവർക്ക് വെള്ളം കിട്ടും